രണ്ടു വർഷം മുൻപുള്ള ജനുവരി മാസത്തിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വളർച്ച വരൾച്ച അനുഭവപ്പെട്ടത് അപ്പം വരൾച്ച ഉണ്ടായ സമയത്തു ഞങ്ങടെ നാട്ടിലാകെ ഒറ്റ കിണറ്റിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളു ഒറ്റ കിണറ്റിന്നല്ല വെള്ളം ഉള്ള കിണർ കുറവായിരുന്നു അതുപോലെതന്നെ എല്ലാവരും ആ കിണറ്റിന്നാണ് വെള്ളം ആശ്രയിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് വെള്ളത്തിൻ്റെ ഉപയോഗം എല്ലാം ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നു കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരിക്കുടെ ചിട്ട ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നു അനാവശ്യമായിട്ട് വെള്ളമൊന്നും കളയാതെ അതുപോലെതന്നെ ചില നാട്ടിലക്കെ ചില വീട്ടിൽ കിണറുകളിൽ കോർപ്പറേഷൻ പഞ്ചായത്തിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു കിണറിൽ അല്ല അല്ലാതെ പഞ്ചായത്തിലോട്ട് വെള്ളം പഞ്ചായത്തിന്ന് വെള്ളം ടാങ്കുകൾ വഴി ടാങ്കർ വഴി വരുന്നുണ്ടായിരുന്നു അല്ലാതെ ആൾക്കാർ ടാങ്കിൽ കൊണ്ട് കിണറ്റിൽ വെള്ളം അടിപ്പിക്കും അടിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ വളർച്ച വന്നപ്പം വരൾച്ച വന്നപ്പം വളരെ വ്യാപകമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അപ്പം വളരെ കഷ്ടതയുള്ള സമയമായിരുന്നു അത്